സ്കൂളിലെ ഇഷ്ടപ്പെട്ട സബ്ജെക്ട് ഏതാണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ലാംഗ്വേജാണ് കൂടുതലായിട്ട് താൽപര്യം കാരണം അതു പഠിക്കാൻ കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നിയിട്ടുണ്ട് കുറച്ചുകൂടി ഈസിയാണ് പഠിച്ചതെല്ലാം നമുക്ക് മനസ്സിലാവുന്ന ഒരിതാണ് ലാംഗ്വേജ് പിന്നെ അത് അത്യാവശ്യം നല്ല നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്ട് കൂടിയാണ് എല്ലാവർക്കും പിന്നെ പ്രയാസമുള്ളത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ സയൻസാണ് കൂടുതൽ പാടെടുക്കുന്നേ ചരിത്രം ആദ്യം തൊട്ടു പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പഠിക്കുന്ന ഒരു പഠിച്ച് ആദ്യം തൊട്ടേ പഠിച്ച് വരികയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നും ഇത് പഠിക്കാൻ ഈ എന്താ പറയുക പെട്ടെന്നൊരിത് പഠിക്കാനുള്ളൊരു പ്രയാസം ഉണ്ട് അത് കുറച്ച് ടഫ്ഫായിട്ടെനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ പഠനകാലത്തെ സന്തോഷമുള്ളൊരു ഓർമ്മയെന്നു വച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഡേയ്സും അടിപൊളിയാണ് ബിക്കോസ് ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള എല്ലാ മൊമെൻ്സും ഒരു ആ അടിപൊളിയാണ് അവരോട് ഞാൻ നടക്കുന്ന ഓരോ ടൈമും ബെറ്റർ ആണെനിക്ക് എല്ലാ അവരോടുള്ള ഏതു ടൈമും എനിക്ക് സന്തോഷമുള്ള ഒരു ഓർമ്മയാണ്